ഹലോ അതേ ആരായിരുന്നു ഓക്കെ ഇവിടെ എല്ലാം വിധ ഡിഷും ഉണ്ട് ഇപ്പം നമുക്ക് ബിരിയാണി ആണെങ്കിൽ എല്ലാ ഐറ്റംസുമുണ്ട് പിന്നെ അതുപോലെതന്നെ മന്തി ഉണ്ട് പിന്നെ നമുക്ക് ഒരു രണ്ടു മണിക്ക് ശേഷം ആണെങ്കിൽ ഷവർമ അതായത് പലതരം ഷവർമ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മോമോസുണ്ട് പിന്നെ നമുക്ക് ജ്യൂസ് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അത് ചെയ്ത് തരാം ആൽഫാമുണ്ട് പെരിപ്പെരി ആൽഫാമുണ്ട് പിന്നെ ചിക്കനാണ് ബ്രോസ്റ്റഡ് ചിക്കനുണ്ട് ചിക്കൻ ചില്ലി ഉണ്ട് പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവുണ്ട് പിന്നെ മലബാരി ചിക്കൻ സിക്സ്റ്റി ഒരു ഇതാ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു കറി തന്നെ ആയിരിക്കും പക്ഷെ അതിന് രണ്ട് ടേസ്റ്റായിരിക്കും രണ്ട് ഇതായിട്ടുള്ള രണ്ടു ടേസ്റ്റായിരിക്കും അങ്ങനെ ഉള്ള ഒരു ഇതുണ്ട് പിന്നെ മുട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ഓ ഉണ്ട് ഉണ്ട് ഏത് ഷേക്ക് വേണമെങ്കിലും ഉണ്ട് പിന്നെ നമുക്ക് ജ്യൂസ് ആയിട്ടാണെങ്കിൽ ജ്യൂസ് എല്ലാ തരം ജ്യൂസുകളും ഉണ്ട് ഇപ്പോൾ നമുക്ക് ചിക്കു ഷേക്ക് ചിക്കു ജ്യൂസ് പിന്നെ ജ്യൂസിനൊക്കെ നമുക്കിപ്പോൾ ഒരു ഓഫറുണ്ട് ഇപ്പം ഒരു ജ്യൂസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെയൊരു പിന്നെ ഒരു ജ്യൂസും കൂടി ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്

നമുക്ക് പത്ത് കിലോ മീറ്ററിനുള്ളിൽ നമുക്ക് ഫ്രീ ഡലി ഡെലിവറിയാണ് നിങ്ങളെന്താ ഓർഡർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തിക്കും കൃത്യമായിട്ടുള്ള സാധനങ്ങൾ ആണല്ലേ ഹാ ഹാ പത്ത് പേർക്ക് ആകുമ്പോൾ നമുക്ക് എന്താ വേണ്ടത് ബിരിയാണി വേണോ അതോ മന്തി വേണോ ബിരിയാണി ആണെങ്കിൽ പല തര പല ടൈപ് മന്തിയാണെ ഓക്കെ ഓക്കെ

ആ ഓക്കെ ഓക്കെ പത്ത് പേർക്ക് പാകം അല്ലേ പത്ത് പേർക്ക് പാകത്തിന് അല്ലേ ആ അതെ അതെ അതെ ആ ആയിരിക്കും ആയിരിക്കും ആയിരിക്കും പിന്നെ നമുക്ക് എങ്ങനെയാണ് വെജ്ജ് വേറെന്തെങ്കിലും വെജിറ്റേറിയനായിട്ടുള്ള എന്തെങ്കിലും വേണോ പനീർ ബട്ടർ മസാലയുണ്ട് മഷ്റൂം കറയുണ്ട് പിന്നെ മഷ്റൂം മസാല അങ്ങനെ ഓ നമ്മളിപ്പോൾ പത്ത് പേർക്കാണെങ്കിൽ മേം ഒരു പന്ത്രണ്ട് പേർക്കുള്ള റൈസ് എങ്ങനെയാണെങ്കിലും ഉണ്ടാകും റൈസ് ഒന്നും കുഴപ്പമില്ല മേം നമുക്ക് റൈസ് നമ്മൾ കുറച്ച് എക്സ്ട്രാ ഇടും ഓ ബർഗറുണ്ട് സാൻവിച്ചുണ്ട് പിന്നെ ശവർമ ശവർമ ഉണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഓക്കെ ഓക്കെ ആ ഞാൻ മെനു കാർഡ് ഇടാം മേം മേം ഒന്ന് ഇതിലേക്ക് ഒന്ന് മെസേജ് ചെയ്താൽ മതി എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളവിടെ എത്തിച്ച് തരാം ഒരു പത്ത് കിലോ മീറ്ററിന് ഉള്ളിലല്ലേ എന്തായാലും ആ ഓക്കെ മേം ഞാ മേമിന് ഞാനിപ്പോൾ ഈ നംമ്പറിൽ ഒന്ന് സെൻ്റ് ചെയ്ത് തരാം കേട്ടോ ഓക്കെ താങ്ക് യൂ മേം